എന്റെ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ അത്യാവശ്യം ഉഴപ്പി നടന്ന ബാക്ക് ബഞ്ചറൊക്കെയാണ് അപ്പോൾ ഉഴപ്പി നടന്ന് കളിച്ചു ചിരിച്ച് അങ്ങനെ നടക്കുന്ന ഒരു ഒരാളാണ് ഞാൻ അപ്പോൾ എന്റെ നേട്ടം എന്ന് പറയുമ്പോൾ എന്നേ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട് നിന്റെ ബിഹേവിയർ മോശമാണ് അങ്ങനെയൊക്കെയും പറഞ്ഞിട്ടുണ്ട് വളരെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള ആ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ആ ടീച്ചർ തന്നെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് നീ അടിപൊളിയാണെന്ന് എന്റെ ക്ലാസ്സില് എക്സ്ട്ര ഓഡിനറി എന്നൊക്കെ തോന്നുന്ന ഒരു കുട്ടിയാണ് നീയെന്ന് എന്റെ മുഖത്തു നോക്കി അന്ന് ആ ടീച്ചറ് പറഞ്ഞു അത് എന്തുകൊണ്ടാണെന്നെനിക്കറിയില്ല ഉഴപ്പി നടന്നാലും ഞാനെന്റെ കാര്യങ്ങള് ഭംഗിയായിട്ട് നോക്കുമായിരുന്നു എന്റെ കാര്യങ്ങള് ചെയ്യുമായിരുന്നു അതൊന്നും ആ ടീച്ചർ ആ ടൈമില് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ അതിൽപ്പിന്നെ സിറ്റുവേഷൻസല്ലേ ഓരോ സിറ്റുവേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞ് പോകുമ്പോൾ ഓരോരുത്തർക്ക് മനസ്സിലാവും നമ്മളത് പറയണ്ട ആവിശ്യമില്ല നമ്മളുടെ പ്രവൃത്തിയിലൂടെ അത് ഓരോന്ന് കാണിക്കുമ്പോൾ അവർക്ക് ഓൾറെഡി മനസ്സിലാവും അപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ അഭിമാനം തോന്നുന്ന നിമിഷം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പാച്ചല് വർക്ക് എക്സ്പീരിയൻസിനൊക്കെ പങ്കെടുക്കുമ്പോൾ എന്നെക്കൊണ്ട് ഒന്നും ആവില്ലെന്നു പറഞ്ഞ ടീച്ചറിന്റെ മുന്നില് തന്നെ ഞാൻ ഞാനത് പങ്കെടുത്തിട്ട് ഞാൻ കപ്പ് കൊണ്ട് നമ്മുടെ സ്കൂളില് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു നിമിഷമൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുകയാണ് ആ ടീച്ചർ തന്നെ എന്നെ ഒന്നിനും കൊള്ളില്ലയെന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കിയ ടീച്ചർ തന്നെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ എക്സ്ട്ര ഓഡിനറി സ്റ്റുഡന്റാണെന്ന് അത് തന്നെയാണെന്റെ ഇതുവരെയുള്ള എൻ്റെ ഇരുപത് വയസ്സ് വരെയുള്ള എന്റെ നേട്ടങ്ങളിലേറ്റവും ഞാൻ കാണുന്നൊരു ഒന്ന് അപ്പോൾ എനിക്കത് ഭയങ്കര ഇപ്പോൾ പറയുമ്പോൾ പോലും എനിക്കത് ഭയങ്കര അഭിമാനം തോന്നുകയാണ്